കോളേജിലത്തേയും സ്കൂളിൽത്തെ എല്ലാം ടൂറ് പോയ കാര്യം പറയാന് വരുമ്പം ആദ്യം ഓര്മ്മ വരുന്നത് പിന്നെ പ്ലസ് ടു വിന് ഹംപി ഗോവ ടൂറ് പോയതാണ് അപ്പോൾ അതെന്ന് വച്ചാല് സാധാരണ ഒരു സ്കൂള് ലൈഫ് എന്ന് എല്ലാം പറയുമ്പം എന്താ പ്ലസ് ടു വരെ ഉള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ഗോവ ഹംപി ഒന്നും ആരും ടൂറ് കൊണ്ടു പോവുകയില്ല കൂടിപോയാല് മൈസൂര് വിസ്മയ പാര്ക്ക് അവിടെ ഒക്കെയേ കൊണ്ട് പോവുകയുള്ളൂ പക്ഷെ ആ സമയത്ത് എന്ന് വച്ചാല് ആനന്ദം മൂവി ഇറങ്ങിയ ഒരു സമയമായിരുന്നു അപ്പം ആ സമയത്ത് ഏതു സ്ഥലത്തോട്ടാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ഗോവ ഹംപി അത് എല്ലാവരും പെട്ടന്ന് ആ ഒരു സിനിമയുടെ ഇന്ഫ്ലുവനസില് ആ സ്ഥലം ചൂസ് ചെയ്തു പിന്നെന്താ ടീച്ചേഴ്സും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കാരണം കുറെ കാലമായിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ട് പോകാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത് എന്തൊക്കെയോ കുട്ടികള്ക്കിടയില് എന്തെല്ലാമോ ഇഷ്യൂ കാരണം ടൂറ് പോകാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ സാറിനൊരു നിര്ബന്ധം ഉണ്ടായിരുന്നു എന്തായാലും ഈ ബാച്ചിനെ ടൂറ് കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഗോവ ഹംപി ഞങ്ങള് ഫിക്സ് ചെയ്തപ്പോൾ തന്നെ ആ സാറ് പറഞ്ഞു കുഴപ്പമില്ല എന്തായാലും പോവാം എന്നുള്ളത് അപ്പം അങ്ങനെ പ്ലസ് ടൂ ന്ന് പിന്നെന്താ പത്തറുപത് ആള്ക്കാര് അറുപത്തി ആറ് ആള്ക്കാര് എന്തോ ഉണ്ടായിരുന്നു എന്താ നാട്ടില് പറയുമ്പം തന്നെ എല്ലാവർക്കും ഒരത്ഭുതം ഉള്ള കാര്യമായിരുന്നു പ്ലസ് ടു ന്ന് ഗോവയിലോട്ട് ടൂറ് പോകുന്നു എന്ന് എല്ലാം പറയുമ്പോൾ അതായത് കുറെ നാട്ടില് ഏകദേശം ഒരു പതിനെട്ടു പത്തൊമ്പത് ആ ഒരു ഏജുള്ള ആള്ക്കാരെ എല്ലാം ഒരു ഡ്രീം പ്ലയ്സ് ആണ് ഗോവയ്ക്ക് പോകുക എന്നുള്ളത് എന്താ പ്രത്യേകിച്ച് അവിടെ എന്താ ഉള്ളതെന്ന് എന്നല്ല പക്ഷെ എന്നാലും പറയുമ്പോൾ ഒരു സുഖത്തിനു ഗോവയ്ക്കു പോകുക എന്നുള്ളത് അപ്പം അങ്ങനെ ഞങ്ങള് പിന്നെ രണ്ടു ബസില് ആയിട്ടാണ് പോയത് പിന്നെ ബസിനെന്തോ ഇഷ്യൂ എല്ലാം കാരണം പിന്നെ ഒറ്റ ബസ് കിട്ടിയില്ല അങ്ങനെ രണ്ടു ബസുകളിലായി പോയി പകുതീന്ന് വേറെ ബസ് വിളിച്ച് അങ്ങനെ എന്തൊക്കെയോ ബസിന്റെ കുറച്ച് ഇഷ്യുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യം എന്താ ഇപ്പഴത്തെ പോലെ ടൂറ് തുടങ്ങുമ്പം ചെറിയ ഒരു ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സും സ്റ്റുഡന്സും തമ്മില് ചെറിയ കശപിശ കാര്യങ്ങളൊക്കെ ടൂറ് പോയി ഗോവ ഹംപി പോയി അപ്പോൾ നമ്മള് പോയ സമയം എന്ന് പറയുന്നത് ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ടൈമായിരുന്നു അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ടൈമില് പിന്നെ ഗോവ എന്ന് പറയുന്നത് ഏറ്റവും ബിസി ആയിട്ടുള്ള സ്ഥലമാണ് അതായത് ട്രാഫിക് ഒടുക്കത്തെ ട്രാഫിക് ആയിരിക്കും അപ്പോൾ നമ്മള് എന്തായാലും നാലു ദിവസത്തെ ടൂറായിരുന്നു പ്ലാന് ചെയ്തിട്ടുണ്ടായിരുന്നത് അതില് നാലാമത്തെ ദിവസം തിരിച്ചു റിട്ടേണ് എത്തുന്നത് പോലെ അപ്പം ആദ്യത്തെ രണ്ടു ദിവസം അല്ല മൂന്ന് ദിവസത്തെ ടൂറായിരുന്നു ലാസ്റ്റ് ഡേ തിരിച്ചെത്തുന്ന പോലെ അപ്പോൾ രണ്ടു ദിവസം പിന്നെ ഗോവയില് ഒരു ദിവസം ഹംപിയില് എന്ന പോലെയാണ് പ്ലാന് ചെയ്തത് പക്ഷെ നമുക്ക് ശരിക്കും എന്താ ഒരു ഐഡിയയും ഇല്ലായിരുന്നു ഗോവ എങ്ങനെയാണ് വേണ്ടത് ഗോവയില് എങ്ങനെയാണ് പ്ലാന് ചെയ്യേണ്ടത് ഹംപിയില് എങ്ങനെയാണ് പ്ലാന് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സിനിമ നമ്മുടെ ഇന്ഫ്ലുവന്സ് ചെയ്തൂന്ന് മാത്രം അപ്പം അങ്ങനെ പോയപ്പം എന്തായെന്ന് വച്ചാല് ഒരു ദിവസം ഗോവയില് എത്തി ആ ഡേ മൊത്തം ട്രാഫിക്കില് പെട്ട് ഒരു ദിവസം മൊത്തമായിട്ട് പോവുകയാണുണ്ടായത് വണ്ടിയില് തന്നെ ആയിരുന്നു നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല പിന്നെ വേറെ റൂട്ടൊന്നും വേറെ റൂട്ട് പിടിച്ചു പോവാന് പറ്റുന്നില്ല തിരക്കായത് കൊണ്ട് കാരണം ഫോറിനേഴ്സ് കൂടുതലായിട്ട് ഗോവയിലോട്ട് വരുന്ന ആ ഒരു ടൈമാണ് ക്രിസ്മസിനിടെ അപ്പോൾ ഒരു ദിവസം മു മുഴുവനും നമ്മള് ഇങ്ങനെ വണ്ടിയില് തന്നെ ചെലവഴിച്ചു ട്രാഫിക്കിലെല്ലാം പെട്ട് പോയി വൈകുന്നേരം ഒരു മൂന്നു നാല് ബീച്ചിലോട്ടാണ് പോയത് ഫെയിമസായിട്ടുള്ള എന്താ ബാഗ ബീച്ച് പിന്നെ വാഗത്തൂര് ബീച്ച് അങ്ങനെ ഒന്ന് രണ്ടു മൂന്ന് ബീച്ചിലെന്തോ പോയി കുറച്ച് അടുത്തുള്ളത് അപ്പം ഒരു ദിവസം മൊത്തം അങ്ങനെ ഗോവയില് പോയി സെക്കന്ഡ് ഡേ എന്ന് വച്ചാല് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒരു ഒരു ഹില്ടോപ്പിലോട്ടാണ് പോയത് അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹില് ടോപ്പില് അവിടെ അത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലാരുന്നു പക്ഷെ നമുക്ക് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഒന്നാമത് ആ സിനിമ ഇറങ്ങിയ ഒരു സമയമാണ് ആ സിനിമാന്ന് വച്ചാല് ഒരു പ്ലസ് ടു ഡിഗ്രി പഠിക്കുന്ന കുട്ടികള്ക്ക് എന്താ ഒരു എല്ലാവര്ക്കും ഇഷ്ടമുള്ള സിനിമ എല്ലാവരു ആ ടൂറ് പോകാന്ന് പറയുമ്പം അങ്ങോട്ടേക്ക് പോവുക ഹംപി അത് ഹംപിനേ പറ്റി കൂടുതല് എല്ലാവരും അറിയുന്നത് തന്നെ ആ സിനിമ വന്നതിനു ശേഷമാണ് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവര്ക്കും ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനോട് ഞാൻ ഞങ്ങള് ഗോവ ഹംപി പോകുന്നെന്നു പറയുമ്പോൾ ആ ഒരു ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഏകദേശം അത് ഫ്ലോപ്പായിരുന്നു അത് എന്ന് വെച്ചാൽ രണ്ടു ദിവസം ഗോവയില് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ട് അത് മാത്രമല്ല നല്ല സ്ഥലമൊന്നും ഇല്ലാണ്ട് വെറുതേ ഇങ്ങനെ നാട്ടില് ബീച്ച് കാണുന്നത് പോലെ പിന്നെ ഒരു ഹില്ടോപ്പിലും പോയി വന്നു പിന്നെ നമുക്ക് പ് ഉണ്ടായ ഒരു കാര്യം എന്ന് വച്ചാൽ കുറച്ച് എക്സ്പീരിയന്സ് ചെയ്തു അതായത് നാട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നാട്ടിലൊന്നും ആ സമയത്ത് അധികം ട്രാന്സ് ജെന്ഡേഴ്സിനെ പകല് സമയത്ത് അങ്ങനൊന്നും കാണുന്നുണ്ടായില്ല പക്ഷെ അവിടെ പോയിട്ട് കൂടുതലും ട്രാന്സ് ജെന്ഡേഴ്സ് ആയിരുന്നു കാരണം ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവരെന്താ പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും എല്ലാ സ്പോട്ടിലും ഫുഡ് കഴിക്കുന്ന സ്പോട്ട് ആണെങ്കിലും നമ്മള് ബസ് പാര്ക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആണെങ്കിലും നമ്മള് വെറുതെ കറങ്ങി നടക്കുന്ന സ്ഥലത്താണെങ്കിലും റസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എല്ലായിടത്തും ഇവര് അന്നാണ് ശരിക്കും എന്താ ട്രാന്സ്ജെന്ഡേഴ്സിനെ നേരിട്ട് കാണുന്നതും പിന്നെ അവര്ക്ക് വേണ്ടി നമ്മള് ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ അവരെ പറ്റി കുറെ കാര്യം അവരോടു സംസാരിച്ചു കൊണ്ടേയിരുന്നു